ആ സാറെ ഞാൻ ഞാൻ ബി എസ് ഡബ്ല്യൂലെ റോബിൻ സാറ് ആയിരുന്നു ആ ആ എന്തൊക്കെയുണ്ട് വിശേഷം സുഖമാണോ ആ ആ എങ്ങനെയുണ്ട് കാലാവസ്ഥയൊക്കെ ആ സാർന് പനിയാണെന്നൊക്കെ അറിഞ്ഞു മാറിയോ ആ ഓക്കെ കോളേജിലിന്ന് എത്തുമോ ആ ഓക്കെ ഓക്കെ ഭക്ഷണം കഴിച്ചോ സാറെ ഭക്ഷണം ഒക്കെ കഴിച്ചായിരുന്നോ ആ മ് വീട്ടിൽ വീട്ടിൽ കുടുംബം ഒക്കെ എന്ത് പറയുന്നു

സാർന് രണ്ട് മക്കളല്ലായിരുന്നോ സാർന് രണ്ട് പെൺമക്കളല്ലായിരുന്നോ ആ ആ ആ മ് അപ്പം സാറെ ഞാനിന്ന് വിളിച്ചതെ ആ നമ്മളെ കോളേജിൽ നടക്കുന്ന കുറേ കാര്യങ്ങൾ സംസാരിക്കാനായിരുന്നു ഇപ്പം എൻ്റെ എൻ്റെ ക്ലാസിൽ തന്നെ ഇരുപതോളം കുട്ടികളുണ്ട് ഓ ഇരുപതോളം നമ്മൾ ഫസ്റ്റ് ബാച്ച് ബി എസ് ഡബ്ല്യൂ ഫസ്റ്റ് ബാച്ച്

അപ്പം ആ അവിടെ ഇരുപതോളം പിള്ളേരുള്ളതുകൊണ്ട് നമ്മൾ ഒരു വിധത്തിലാണ് എല്ലാവരെയും മാനേജ് ചെയ്ത് കൊണ്ടുപോവുന്നത് ഈ എന്തൊക്കെ പറഞ്ഞാലും നമ്മളെ കൊണ്ട് പറ്റുന്നതിൻ്റെ മാക്സിമം നമ്മൾ നോക്കുന്നുണ്ട് എങ്കിൽ പോലും ഇവർ തമ്മിൽ തമ്മിൽ ഭയങ്കര പ്രശ്നങ്ങളൊക്കെയാണ് ഒരൊത്തൊരുമയില്ല ക്ലാസിൽ മ് ഇപ്പം നമ്മൾ വീട്ടിൽ തന്നെ വീട്ടിൽ തന്നെയാണെങ്കിലും നമ്മൾ ഭയങ്കര ഒത്തൊരുമയിലല്ലേ ജീവിക്കുന്നത് ആ ഒരൊത്തൊരുമ ഈ പിള്ളേർക്ക് കിട്ടുന്നില്ല അപ്പം മ് സാറ് അറിഞ്ഞായിരുന്നല്ലോ നമ്മുടെ കലിങ്കുയിക്ക് ഓരോ പിള്ളേർ പ്രശ്നം ഉണ്ടാക്കിയതും അതും ഇതും ഒക്കെ ആ വലിയ പ്രശ്നമായി അപ്പം അവരുടെ വീട്ടിൽനിന്നൊക്കെ വിളിച്ചിരുന്നു അപ്പം തല്ല് കിട്ടി പിള്ളേർക്ക് ഒടിവും പൊട്ടലും ഒക്കെയുണ്ട് ഇനി തല്ല് കൊടുത്ത പിള്ളേരാണെങ്കിലും മുങ്ങി നടക്കുകയാണ് അപ്പോൾ നമ്മൾ അതിൽ അത് ആ കാര്യത്തിൽ നന്നായിട്ട് നോക്കേണ്ടത് ഉണ്ട്

ആ അതാണ് ആ ഇന്ന് എത്രയും വേഗം തന്നെ അതിന് വേണ്ടിയിട്ടുള്ളൊരു പ്രതിവിധി നമ്മൾ കണ്ടെത്തേണ്ടതാണ് മ് മ് ആ ആ സാറീ കാര്യങ്ങളൊന്ന് പറയാനായിട്ടായിരുന്നു വിളിച്ചത് എത്രയും പെട്ടെന്നുതന്നെ നമുക്കിതിനൊരു നീക്കുപോക്കുണ്ടാക്കണം

ആ ഓക്കെ ഓക്കെ സാറെ

ആ പിന്നെ പേരൻസ് മീറ്റിംഗ് നമ്മളിപ്പം അടുത്തുതന്നെ നടത്താനുദ്ദേശിക്കുന്നുണ്ട് മ് ആ അതിന് മുമ്പായി ആ കൂടെത്തന്നെ അതായത് എത്രയും പെട്ടെന്ന് നടത്തിയാൽ നമുക്ക് ഈ കാര്യം കൂടി പോരാ അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് പേരൻസിനെ വിളിക്കേണ്ടി വരും ആ ആ ആ ഓക്കെ സാർ ഓക്കെ സാർ ശരി സാറെ എന്നാൽ